ആ ഹലോ ആ പറയൂ ആരാണ് ആ പറയൂ എനി ആ അതെ ആരുടെ ഫാദർ ആണ് ആരുടെ ഫാദർ ആണ് ആ പറയൂ ആ ഏത് ദിവസത്തേക്കാണ് ഓക്കെ മോൻ ഏതു ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏത് ക്ലാസും ക്ലാസ് ടീച്ചറുടെ പേരും കൂടെയൊന്നു പറയാമോ ഓ ഓക്കെ ഓക്കെ അപ്പോൾ അവർ ആദ്യം ടീച്ചർക്കൊരു ലീവ് ആപ്ലിക്കേഷൻ എഴുതി മോൻ്റെ കൈയിൽ കൊടുത്തേക്കൂ എന്തൊക്കെയാണ് റീസൺ എന്നെഴുതിയിട്ട് എന്നിട്ട് അതിനുശേഷം അതിൽ സൈൻ വാങ്ങിയിട്ട് നിങ്ങളും സൈൻ ചെയ്ത് തിരിച്ചതുകൊടുത്തേക്കണം അതാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്രൊസീജർ ലീവ് ആപ്ലിക്കേഷനുള്ള ഇല്ല അത് കുട്ടിയുടെ കൈയിൽ കൊടുത്തുവിട്ടാൽ ഇല്ല കുട്ടിയുടെ കൈയിൽ കൊടുത്തേച്ചാൽ മതി നമ്മൾ ലീവ് ആപ്ലിക്കേഷനുണ്ട് ആ അത് അത് മോന്റെയടുത്ത് കൊടുത്തയയ്ക്കാം ലീവ് ആപ്ലിക്കേഷനുണ്ട് ഓരോ ക്ലാസ്സിലും കൊടുത്തുവെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നിങ്ങൾ റീസണും ഏതുദിവസമൊക്കെയാണ് ഡേറ്റും എല്ലാം മെൻഷൻ ഫോൺ നമ്പറും എല്ലാം മെൻഷൻ ചെയ്തിട്ട് നിങ്ങൾ കൊടുത്താൽ മതി എന്നിട്ടത് ടീച്ചറൊപ്പിട്ട് തരും അത് തിരിച്ചു നിങ്ങളും ഒപ്പിട്ടിട്ട് ഇവിടെ സ്കൂളിൽ തന്നെ ഏൽപ്പിക്കണം പിന്നേയതുപോലെത്തന്നെ അതൊരു ലീവ് ഒരു ലീവ് കാർഡും നമ്മൾ മെയിൻറൈൻ ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സിൽ ഓരോ കുട്ടിക്കും അപ്പോൾ അതിലും ആ ഡേറ്റ് മെൻഷൻ ചെയ്യണം എന്തിനാണെന്നുവെച്ചാൽ എത്രദിവസം ഓരോ കുട്ടികളും ലീവെടുക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്നതിനുവേണ്ടിയിട്ടാണ് പിന്നെ അതുപോലെതന്നെ ഇപ്പോൾ കുട്ടി ലീവെടുക്കുകയാണെങ്കിലും അപ്പോൾ ക്ലാസ്സിൽ എങ്ങനെയാണ് പിന്നെ ഒരു മൂന്നുദിവസമൊക്കെയെന്നുപറയുമ്പോൾ ഒരുപാട് ക്ലാസ്സിൽ നോട്ടൊക്കെ എഴുതാനൊക്കെയുണ്ടാകും അപ്പോൾ അതൊക്കെ മാനേജ് ചെയ്തോളുമല്ലോ ഓക്കെ ഓക്കെ ഓക്കേ ഓക്കെ അപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങളെന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ മതി കുഴപ്പമില്ല അപ്പോൾ അതിൽ പറഞ്ഞത് പോലെ എഴുതിക്കൊടുത്തേച്ചാൽ മതി ഓ ശരി താങ്ക്യൂ